നമ്മുടെ ഗ്രാമത്തിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശവസംസ്കാര ചടങ്ങുകൾ ഓരോ പിന്നെ മതത്തിലും ഓരോ വിധമാണ് ഇപ്പം ക്രിസ്ത്യാനികളാണെങ്കിൽ പള്ളിയിലാണ് അടക്കാറ് അതായത് പള്ളികളിലാണ് അടക്കുക പിന്നെ അവരിങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായതിപ്പം തൂങ്ങിമരണം അങ്ങനെയുള്ളതൊക്കെയാണെങ്കിൽ അവർ ഈ തെമ്മാടിക്കുഴി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് അതിലാണ് അവർ അടക്കാറ് പിന്നെ മുസ്ലീംസിൻ്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ അവർ ഖബറടക്കും അതായത് അവർക്ക് പൊതുശ്മശാനം ഉണ്ടാവും അവിടെ കൊണ്ടുപോയിട്ട് ഖബർ അടക്കും പിന്നെ ഹിന്ദുക്കളുടെ എന്ന് പറയുന്നതിപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ദഹിപ്പിക്കും അല്ലെങ്കിൽ കുഴിയിലിട്ട് മൂടും അങ്ങനത്തെ സംഭവങ്ങളാണ് അപ്പം കൂടുതൽ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദഹിപ്പിക്കുന്നതാണ് പിന്നെ ഹിന്ദുക്കളാണ് കൂടുതലും പ അതായത് ക്രിസ്ത്യാനികൾ ഒരുപാട് പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും അതായത് കുറേ കന്യാസ്ത്രീകൾ വന്നിട്ടും അച്ചന്മാർ വന്നിട്ടും പ്രാർത്ഥിക്കുക അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ അവർ പിന്നെ പിന്നെ ഇതാക്കുള്ളൂ അടക്കുള്ളൂ അതേപോലെ തന്നെയാണ് മുസ്ലീസിലും അതേപോലെ തന്നെയാണ് ഹിന്ദുക്കളും ഹിന്ദുക്കളിൽ പൂജാരിയൊക്കെ വന്നിട്ട് പൂജയൊക്കെ ചെയ്ത് പിന്നെ നമ്മളെ കുറേ ചടങ്ങുകളുണ്ട് അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കുഴിയിലിടുആണെ കുഴിയിലിടുള്ളൂ അല്ലെങ്കിൽ പിന്നെ ദഹിപ്പിക്കുള്ളൂ